നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ മലയാള ഭാഷയ്ക്ക് അത്രയധികം പ്രാധാന്യമില്ലാത്തൊരു കാലഘട്ടമാണ് ഇന്ന് നിലനിൽക്കുന്നത് എന്നു പറയുന്നത് ഭാഷ ഉണ്ട് ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിക്കുന്നവർ കൂടുതലാണ് എങ്കിൽ പോലും ഈ ഭാഷ എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ളതിൽ ഭയങ്കര തർക്കം നിലനിൽക്കുന്നൊരു കാലഘട്ടമാണ് മാതൃ ഭാഷയായ മലയാളത്തിന് സ്കൂളുകളിൽ പോലും രണ്ടാം തരം ഭാഷ എന്ന നിലയിലാണ് ഇന്നും ജനങ്ങൾ ഇതിനെ കണ്ടു വരുന്നത് മലയാള ഭാഷ എന്നു പറയുന്നത് നമുക്ക് പ്രാധാന്യമുള്ളതാണെങ്കിൽ പോലും മറ്റ് ഇടങ്ങളിലേക്ക് ചെല്ലുമ്പോഴാണെങ്കിലും നമ്മുടെ മലയാള ഭാഷയ്ക്ക് അത്രത്തോളം പ്രാധാന്യം ഇല്ലെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് മലയാളഭാഷ സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും ആ ഭാഷയിൽ പല ഭേദങ്ങളും നമുക്ക് കണ്ടു വരുന്നുണ്ട് ഇന്ന് ഇവിടെ കാണുന്ന ഭാഷയിൽ ആയിരിക്കില്ല മറ്റൊരിടത്ത് നമ്മൾ മലയാളം സംസാരിക്കും മലയാളം തന്നെയായിരിക്കും എങ്കിൽ അത് മാനക ഭാഷയിൽ നിന്ന് അതായത് അച്ചടി ഇലക്ട്രോണിക് മാധ്യമങ്ങളിൽ ഉപയോഗിക്കുന്ന ഭാഷയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് നമ്മൾ പലതും മറ്റും മലയാള ഭാഷ ഉപയോഗിച്ചു കാണുന്നത് ഇങ്ങനെ ഉപയോഗിക്കുന്നത് മൂലം അതായ ഇത് ദേശങ്ങളുടെ ഭേദമനുസരിച്ചാണ് ഇത്തര മാനകഭാഷയിൽ തന്നെ വ്യത്യാസം ഉണ്ടായത് ഇതു ഭയങ്കര അധികം മലയാള ഭാഷ സംസാരിക്കുന്ന ഭയങ്കര അധികം വെല്ലുവിളി സ്വീകരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഇത്തരത്തിൽ ഭാഷ സംസാരിക്കുന്ന മലയാള ഭാഷ സംസാരിക്കുന്ന മലയാള ഭാഷ ഭാഷയ്ക്കു തന്നെ ഒത്തിരിയേറെ ഭേദങ്ങൾ ഉണ്ടാകാൻ ആ ഭാഷയിൽ ഒരു ഏകീകൃത ഒരു രീതിയിൽ നിന്ന് അതിനെ വ്യത്യസ്തമാക്കി മാറ്റിക്കൊണ്ട് പോകാനുമൊക്കെ ഈ ഒരു ഭേദം ദേശ ഭേദം കൊണ്ട് സാധിക്കുന്നു എന്നതാണ് ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ ഇത്തരത്തിൽ മലയാള ഭാഷ അല്ലെങ്കിൽ മലയാള ഭാഷയെ ഏതു ഭാഷയെടുത്താലും ഭാഷ ഭാഷയിൽ അതായത് സംസാരിക്കുന്നതു കൊണ്ട് മറ്റ് മറ്റ് ഭാഷകൾ നമ്മുടെ ഭാഷയിൽ പ്രയോഗിക്കുന്നതും ഇംഗ്ലീഷ് പോലെയുള്ള അതത് ഭാഷകൾ തനത് രീതിയിൽ നിന്നു മാറ്റപ്പെടുന്നത് എന്തു കൊണ്ടെന്നു ചോദിച്ചാൽ അന്യ ഭാഷക്ക് നമ്മുടെ ഭാഷയിലുള്ള സ്വാധീനം ഈ അന്യ ഭാഷക്ക് നമ്മുടെ ഭാഷയിലേക്ക് സ്വാധീനം ചെലുത്താൻ വേണ്ടി വളരെയധികം മാർഗ്ഗങ്ങളുണ്ട് ഒന്ന് നമ്മുടെ ഭരണപരമായിട്ടുള്ള സ്വാധീനമാണ് അതിനകത്ത് ഭരണകരമായിട്ടുള്ള സ്വാധീനത്തിൽ വരുന്നതാണ് ഇംഗ്ലീഷ് പോലെയുള്ള ഭാഷകൾ ബ്രിട്ടീഷുകാർ നമ്മുടെ കേരളത്തിൽ പൊ മുള്ള കേരളത്തിൽ വന്ന് ഇന്ത്യയിൽ ആദിപത്യം ഉറപ്പിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇംഗ്ലീഷ് നമ്മുടെ ഭരണ ഭാഷയാക്കപ്പെട്ടത് അങ്ങനെയാണ് ഈ മലയാളത്തിൻ്റെ ഇടയ്ക്ക് ഇംഗ്ലീഷ് കൂട്ടിക്കലർത്തി സംസാരിക്കുക എന്നോ രീതിയൊക്കെ നമ്മുടെ മലയാളത്തിലേക്ക് സ്വീകരിച്ചിട്ടുണ്ട് ഇത്തരം ഇതു കൂട്ടുകൾ മലയാള ഭാഷയിൽ ഒരു വെല്ലുവിളി നേരിടുന്ന ന്ന ഒന്നാണ് എന്നാണ് പറയപ്പെടുന്നത് കൂടാതെ ഈ മതപരമായിട്ടുള്ള ഇത് കൂട്ടുകളിലാണ് അറബിക് ഹീബ്രൂ മുതലായ ഭാഷകളൊക്കെ മലയാള ഭാഷയിലേക്കു കടന്നു വരികയും അതി അതിനെ കൂടുതൽ ഇതു കൂട്ട് പ്രശ്നമധികരിക്കുകയുമൊക്കെ ചെയ്യുന്ന ഒരു രീതി മലയാള ഭാഷയിൽ ഇന്നു കാണാൻ കഴിയുന്നുണ്ട് കൂടാതെ സാംസ്കാരിക പരമായിട്ട് സംസ്കൃതം പോലെയുള്ള ഭാഷകൾ മലയാളത്തിലേക്കുള്ള കടന്നു വരവ് ആദിപത്യ സ്ഥാപിക്കുന്നതും ഒക്കെ ഇതിന് നേരിടുന്ന വെല്ലുവിളി മലയാള ഭാഷ സംസാരിക്കുന്നും നേരിടുന്ന വെല്ലുവിളി തന്നെയാണ് ഏട്ടാൻ നമുക്ക് കണക്കാക്കാവുന്ന ഒന്നാണ് പിന്നീട് മറ്റ് അന്യരാജ്യങ്ങളുമായിട്ടുള്ള രാജ്യ സമ്പർക്കം മു മുതലായ കാര്യങ്ങളിൽ നിന്ന് അപ്പം അത് വാണിജ്യപരമായിട്ടുമുള്ള സമ്പർക്കത്തിൽ നിന്നും നമ്മൾ നേരിടുന്ന കുറച്ചധികം കാര്യങ്ങൾ അങ്ങനെ മലയാള ഭാഷ സംസാരിക്കുന്നത് കുറേയധികം വെല്ലുവിളികൾ ഒക്കെ സ്വാ നേരിക്കും കൂടുതലായിട്ടും ഈ അന്യ ഭാഷ സ്വാധീനം നമ്മുടെ ഭാഷയിൽ ചെലുത്തുന്ന സ്വാധീനം ആ ഒരു സ്വാധീനം മൂലമാണ് കൂടുതലായിട്ടും മലയാള ഭാഷ വെല്ലുവിളി നേരിടുന്നത് എന്നു തന്നെ പറയാം